ഞങ്ങളുടെ നാട്ടിലിങ്ങനെ പഞ്ചായത്തുകളിൽ നിന്നും ഇരുപതോളം തൈകളിങ്ങനെ കൊടുക്കാറുണ്ട് വീടുകളിലും അല്ലെങ്കിൽ റോഡ് സൈഡുകളിലും ഈ സ്ഥലങ്ങളുള്ള സ്ഥലത്തൊക്കെ നടാൻ വേണ്ടീട്ട് പഞ്ചായത്തുകളിൽ നിന്നും ഇങ്ങനെ തൈകള് കൊടുക്കാറുണ്ട് അപ്പോൾ അവിടെ നിയമമുണ്ട് ഇങ്ങനെ എത്ര തൈകള് ഇന്ന് വീട്ടിൽ നടണം നിർബന്ധമായിട്ടും നടണം ഇല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആവശ്യമുള്ള മരങ്ങൾ മാത്രമേ ഞങ്ങടെ നാട്ടില് മുറിക്കാറുള്ളൂ എന്താന്ന് വെച്ചാല് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങള് മാത്രം അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഒരു മരങ്ങളും ഇവിടെ നാടുകളിൽ നിന്ന് മുറിക്കാറില്ല പൊതുവേ നട്ടുപിടിപ്പിക്കാറാണ് പതിവ് പഞ്ചായത്തുകളിൽ നിന്നുതന്നെ തൈകള് കൊടുക്കാറുണ്ട് നട്ടുപിടിപ്പിക്കാൻ വേണ്ടീട്ട്